ആ അതെ പറഞ്ഞോളൂ എന്തിനുള്ളതായിരുന്നു മാഡം ഓക്കേ ഏതു ഷോറൂമിൽ നിന്നാണ് മാഡം നോക്കുന്നത് ആ ഓക്കേ മാഡം ഏതാണുള്ളത് വണ്ടി ഹ്യുണ്ടായിൻ്റെ ഇപ്പം മാഡം ഏകദേശം ഒരു ബഡ്ജറ്റ് എത്രയൊക്കെയാണ് പറയുന്നത് മാഡത്തിൻ്റെ ഏകദേശം ഓക്കേ പോകുവല്ലേ ആ ഓക്കേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഹ്യുണ്ടായിൻ്റെ ഏറ്റവും ടോപ് വേരിയൻറ്റ് വരുന്നത് ക്രെറ്റ എങ്ങാണ്ടാണ് അതിന് ട്വൻറ്റി ഫൈവ് എങ്ങാണ്ടേ വരുന്നുള്ളൂ ഫുൾ ഓപ്ഷൻ ആ അതുകഴിഞ്ഞിട്ട് മാഡം മ ലക്ഷ്വറി വെഹിക്കിൾസ് എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ അല്ല നമുക്കൊരു ഫിഫ്റ്റി ലാക്സ് ഒക്കെയാണെങ്കിൽ നമുക്ക് ബെൻസ് ബി എം ഡബ്ലിയൂ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാമായിരുന്നു

ലോണും കാര്യങ്ങളുമൊക്കേ നമ്മൾ ഇവിടുന്ന് ചെയ്തുതരും മാഡം നമുക്ക് ഇപ്പോൾ കാറിൻ്റെ ഷോറൂമിൽ നിന്ന് എത്ര പേഴ്സെൻൻറ്റേജ് ആണോ ലോണിൻ്റെ ഇത് തരുന്നത് അതിനനുസരിച്ചു നമ്മൾ ചെയ്തുതരുന്നതായിരിക്കും ഇപ്പോൾ ഹ്യുണ്ടായി ഒക്കെ ആണെങ്കിൽ നയൻറി പേഴ്സെൻറ്റേജ് വരെ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചു നമുക്ക് ചെയ്യാൻ പറ്റും

ഓക്കേ ആ ഓക്കേ മാഡത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ വെച്ച് മാസം ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് പറയാം സിബിൽ സ്കോർ ഒക്കെ മാഡത്തിന് കറക്ട് ആയിട്ട് തന്നെ ഉണ്ടല്ലോ അല്ലേ സിബിൽ സ്കോറിനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കേ മാഡം എന്നാൽ ഞാനത് കറക്റ്റ് ആയിട്ട് മാഡത്തിന് ചെയ്തുതരാം മാഡം വണ്ടീൻ്റെ ഏതെങ്കിലും ഒന്നു നോക്കി ഷോറൂമിൽ ചെന്നിട്ട് ഷോറൂം പ്രൈസും കാര്യങ്ങളുമൊക്കേ ഒന്ന് അന്വേഷിച്ചിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി ബാക്കി ഞങ്ങൾ അവിടെ സംസാരിച്ചോളാം മാഡത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മാത്രം ഒന്ന് കൊണ്ടുവന്നാൽ മതി മാഡം എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുക ഈവനിംഗ് എത്ര മണിക്കാണ് മാഡം ടൈം ഷോറൂം നമ്മൾ ബാങ്കിൽ ഒരു ഫൈവ് ഒ ക്ലോക്ക് വരെയുണ്ടാവും മ് ഓക്കേ മാഡം ആ ടൈം വന്നാൽ മതി ആയിക്കോട്ടെ മാഡം